നമുക്ക് ഇപ്പോൾ വെള്ളമെന്നു പറയുമ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ അത്യാവശ്യമായ ഒരു കാലഘട്ടമായതുകൊണ്ടായിരിക്കും കാരണം അത്രയ്ക്ക് ഭയങ്കരചൂടാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ വിയർത്തൊഴുകും അമ്മാതിരി ചൂടാണ് അപ്പോൾ നമ്മളെന്തായാലും വെള്ളംകുടിക്കണമല്ലോ ഏതൊരു മനുഷ്യൻ്റെയും ആദ്യത്തെ ഒരു നീഡെന്നുപറയുന്നത് ഏതൊരു മനുഷ്യനും ആദ്യം ആവശ്യമുള്ള സാധനം എന്നു പറയുന്നത് വെള്ളമാണ് വെള്ളം ഇല്ലെങ്കിൽ മനുഷ്യൻ ഇല്ല അതുകൊണ്ട് വെള്ളം എന്തായാലും നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കും പിന്നതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമെന്നു പറയുന്നത് രാവിലെ എണീറ്റാൽത്തന്നെ ഞാൻ ആദ്യം വെള്ളംകുടിക്യ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ കരണമെന്താണെന്നു വെച്ചാൽ രാവിലെ എണീറ്റിട്ട് വെള്ളം കുടിച്ചാൽ നമ്മളുടെ വയറെല്ലാം ക്ലീനാകും പിന്നെ അത് മാത്രമല്ല ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെയെന്തെങ്കിലും പ്രശ്നമൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ പല്ലു തേക്കാൻ പോകും അപ്പോഴും അവിടെ വെള്ളം വേണം കാരണമെന്താണെന്നുവെച്ചാൽ നമ്മൾ ബ്രഷ് ചെയുമ്പോൾ എന്തായാലും പല്ലുതേയ്ക്കുമ്പോൾ എന്തായാലും വെള്ളം വേണം വായ കഴുകാനാണെങ്കിലും മുഖം കഴുകാനാണെന്നുണ്ടെങ്കിലും അതൊക്കെ അതെ പിന്നെ നന്നായിട്ട് ഞാൻ മുഖം കഴുകും ഫേസ് വാഷെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മുഖം കഴുകും അപ്പോഴും നമുക്ക് വെള്ളം വേണം പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നുവെച്ചാൽ പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കാൻവേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയുന്നതു പോലെ തന്നെ വെള്ളം കുളിക്കാൻവേണ്ടിയിട്ട് യൂസ് ചെയ്യും അതും എനിക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് ഒരച്ചു തേച്ച് നല്ലതു പോലെ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുളിക്കുക അതു കൊണ്ട് എനിക്കിപ്പോൾ കുറേ എൻ്റെ ബോഡിയെന്നു പറയുന്നത് ഏകദേശം ഒരു ഭയങ്കര ചൂടായിട്ടുള്ള എപ്പോഴും എൻ്റെ ബോഡി എപ്പോഴും ഇങ്ങനെ ചൂടായിട്ടാകും നിൽക്കുക അപ്പോൾ എനിക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പോൾ ക ഇപ്പോൾ കോളേജിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാല് ഇടകിടക്കിങ്ങനെ ചൂടായതുകൊണ്ട് ഇടക്കിടക്ക് പോയിട്ട് കാലിന്മേൽക്കൂടി ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കാലൊക്കെ എപ്പോഴും കൂളായിട്ട് നിൽക്കണം കാരണം എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തണുപ്പിലേക്ക് എന്നെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സാധനമാണ് വെള്ളമെന്നുപറയുന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് മറ്റുള്ളവരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് വെള്ളത്തിരി അധികം എക്സ്ട്രാ വെള്ളം എനിക്ക് എപ്പോഴും ദിവസവും കിട്ടണം പിന്നെ രാവിലെ കുളിക്കും രാവിലെ കുളിക്കുമ്പോൾ പിന്നെ വെള്ളം പിന്നെ അതുകഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമല്ലോ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റ് കഴുകുമ്പോൾ വെള്ളം വേണം ഇതേപോലെ തന്നെ രാവിലെ എണ്ണീറ്റുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാത് റൂമുകളിലെല്ലാം പോകുമ്പോൾ വെള്ളം വേണം അപ്പോഴും ഞാൻ കാല് നല്ലവണ്ണം കഴുകും കാരണം എനിക്ക് ചൂട് സഹിക്കാനേ പറ്റില്ല തീരെ സഹിക്കാൻ പറ്റില്ല കാല് എപ്പോഴും അതെനിക്ക് തോന്നുന്നു എനിക്ക് പാരമ്പര്യമായിട്ടാണെന്നു തോന്നണെ എൻ്റെ അമ്മമ്മക്കും ഇതുപോലെ തന്നെ കാലിനും കൈനൊക്കെ ഭയങ്കരമായിട്ട് ചൂട് എപ്പോഴും നിൽക്കും അതുകൊണ്ട് എപ്പോഴും കയ്യിലും കാലിമൊക്കെ വെള്ളമൊഴിക്കണം അപ്പോൾ പിന്നെ പിന്നെ അതു കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളം വേണ്ടത് വേണ്ടതെപ്പോഴാ എന്നു വെച്ചാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചെൻ്റെ കയ്യും കൈയ്യ് കഴുകുമല്ലോ കയ്യും വായുമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം വേണം പിന്നെ അതുപോലെതന്നെ ഞാൻ വീട്ടിലൊക്കെ ഇതിപ്പോൾ ഹോസ്റ്റലിലുള്ള അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിലുള്ള അവസ്ഥയാണ് വീട്ടിലൊക്കെയാണ് ഞാൻ ഉണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെടിക്കു വെള്ളം നനയ്ക്കാനൊക്കെ ഞാൻ വെള്ളം വെള്ളം എടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പട്ടി പട്ടിക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പട്ടികുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കും അങ്ങനെയൊക്കെ കുറെ വെള്ളത്തിൻ്റെ ആവശ്യം എനിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടക്കിടക്ക് വെള്ളം കുടിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഭയങ്കര വേനൽക്കാലമാണ് എല്ലാവരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ച് അധികം കൂടുതലാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ വെള്ളം ഉപയോഗിക്കും പിന്നെ അതുപോലെതന്നെ ഞാൻ പിന്നെ ഇടക്കിടക്ക് രാത്രിയും പിന്നെ കുളിക്കാൻ ഉപയോഗിക്കും പിന്നെ എല്ലാവരും ചെയുന്നതു പോലെ തന്നെ പ്ലേറ്റു കഴുകാനും എന്തെങ്കിലും കഴുകാനും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടകിടക്ക് പോയിട്ട് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ എനിക്ക് വെള്ളം വേണമെന്നു പറയാൻ കാരണം എന്താണെന്നു വെച്ചാൽ എനിക്ക് കയ്യിനും കാലിനും ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് മുഖം കഴുകും പിന്നെ അതുപോലെ തന്നെ കാലിൽ ഇപ്പോഴും വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു അങ്ങനെ ഞാൻ എന്നെ തന്നെ കൂളാക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചൂടിൽ നിന്നു പിടിച്ചു നിൽക്കണെ